ആ ഞാന് ഇവിടെ നമ്മുടെ എറണാകുളത്തുള്ള ദേശത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് തൊഴാൻ വന്നതാണ് അപ്പോള് നിങ്ങളുടെ ഒരു കടയുടെ അഡ്വെർടൈസ്മെൻറ്റവിടെ കണ്ടിരുന്നു ചെറിയൊരു കട കണ്ടു അവിടെ അപ്പോള് ഞങ്ങള്ക്ക് ഭക്ഷണം അവിടെ സ്നാക്സ് അങ്ങനെയുള്ള സാധനങ്ങളാണോ എന്താണ് ഉള്ളതവിടെ കഴിക്കാനായിട്ട് ഓ അതൊക്കെയുണ്ടോ അതൊക്കെയുണ്ടല്ലേ അത് ശരി ഓക്കേ പിന്നെ മസാലദോശയും പിന്നെ നോൺ വെജുണ്ടോ ഇല്ലല്ലോ ഒന്നും ഇല്ലല്ലേ നന്നായി

ഓ ഓ അത് ശരി ചെയ്യുന്നാണല്ലേ ഓ ഓ അത് ശരി അപ്പോള് രാത്രി ചോറ് അങ്ങനെയൊക്കെ കാണുമോ ചോറും കറി അങ്ങനെയൊക്കെ കാണുമോ ആ ആ ഓ അത് ശരി ആ ഓ എല്ലാം ഉണ്ട് ആ ഓ നന്നായി അപ്പോള് നിങ്ങള്ക്ക് അത് ശരി ആ ആ അപ്പോള് ആ നിങ്ങള്ക്ക് ഡോർ ഡെലിവറി അങ്ങനെ ഉണ്ടാവുമോ ആ ഹാ ഹാ ഓക്കേ അപ്പോള് ഞങ്ങള് പിന്നെ ആ ഞങ്ങളിവിടെ ഈ പിന്നെ അമ്പലത്തില് തൊഴാൻ വന്നത് കൊണ്ടിവിടെ അടുത്തൊരു ലോഡ്ജിലാണ് ഞങ്ങള് താമസിക്കുന്നത് അപ്പോള് ഞങ്ങള്ക്ക് പിന്നൊരു കാര്യം എനിക്കറിയണ്ടേന്ന്ച്ചാ രാവിലെ ഞങ്ങള്ക്ക് ചായ വേണ്ടി വരും ഇവിടുള്ളവർക്ക് ഞങ്ങളിപ്പോള് താമസിക്കുന്ന പ്രായുള്ള ആൾക്കാരൊക്കെയുണ്ട് ഉണ്ട് അപ്പോള് നിങ്ങളിവിടെ റൂമിലേക്കെത്തിക്കാൻ പറ്റുമോ നമ്മുടെ ഈ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെയാണ് റൂം ആ അപ്പാ ആണല്ലേ അപ്പോള് അതൊന്നെനിക്ക് എത്തിക്കാവുന്ന രീതിയില് പിന്നെ നാളെ രാവിലത്തേക്കെനിക്കത് വേണ്ടി വരും അപ്പോള് ഞാനിപ്പോഴൊരു പണിചെയ്യാം ഞാന് ഈ പിന്നെ കുറച്ച് പേരുമായിട്ട് ഞങ്ങളിപ്പോള് അങ്ങോട്ട് വരാം വൈകുന്നേരത്ത ചായ കുടിക്കാനും ഒക്കെയായിട്ട് ഞങ്ങളങ്ങോട്ട് വരാം അപ്പോള് വന്നിട്ട് നമുക്ക് ഞാന് പിന്നെ പ്രായമുള്ള കുറച്ച് ആൾക്കാരുണ്ടപ്പോള് അവർക്കും കൂടെയുള്ള ഫുഡ്ഡ് ഞങ്ങള് മേടിച്ചോണ്ട് വന്നോളാം നാളെ രാവിലെ ഞാന് അഡ്രസ്സ് തരാം നിങ്ങളൊന്ന് അവിടേക്കെനിക്കൊന്ന് ചായയോ അല്ലെങ്കില് അവർക്ക് രാവിലെ എന്തെങ്കിലും കഴിക്കാനുള്ള വേണെങ്കിയൊന്നപ്പോന്ന് എത്തിച്ചാല് മതി ഏഴരയൊക്കെ ആവുമ്പോഴേക്കും റൂമിലേക്ക് ഇപ്പോള് ഞങ്ങളങ്ങോട്ട് വരാം ഞങ്ങളങ്ങോട്ടവിടെ വരാം ആ ആ രാവിലത്തേക്കത് തരാൻ പറ്റും അല്ലേ അപ്പോള് ഞാനപ്പോള് എന്നാല് കുറച്ചേരൊരു അരമണിക്കൂര് മുക്കാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങളങ്ങോട്ട് വരാം വന്ന് കഴിച്ചോളാം ഓക്കേ ശരി അപ്പോള് താങ്ക് യു